പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് എല്ലാ പാട്ടുകളും മെലഡി ആണേലും അതൊക്കെ അപ്പോഴത്തെ മൂഡ് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും മെലഡി ആണെങ്കിൽ മെലഡി കേൾക്കാറുണ്ട് അതേപോലെ കുറച്ച് ട്രാക്കുള്ള സോങ്ങുകളൊക്കെ കേൾക്കാറുണ്ട് ഡാൻസിന് പറ്റിയ സോങ്ങുകളും കേൾക്കാറുണ്ട് അതൊക്കെ ആ ഒരു സിറ്റുവേഷനും അപ്പോഴത്തെ ഒരു മൂഡ് സ്വിങ്ങൊക്കെ അനുസരിച്ചാണ് അതൊക്കെ സെലക്ട് ചെയ്യാറുള്ളത് എല്ലാ പാട്ടും കേൾക്കും പിന്നെ പ്രാദേശിക എന്താണ് പിന്നെ നാട്ടും പുറത്തുള്ള പാട്ടുകളും അതൊക്കെ കേൾക്കാറുണ്ട് എല്ലാം ഇഷ്ടമാണ് കേട്ടിരിക്കും മെലഡിയൊക്കെയാണ് കൂടുതലും കേൾക്കാറുള്ളത് മെലഡി പോലുള്ള നമ്മളെ പിടിച്ചിരുത്താൻ ആ ഒരു വൈബിലേക്ക് കൊണ്ട് പോകുന്ന പാട്ടുകളൊക്കെ ഞാൻ മിസ്സാക്കാതെ അല്ലെങ്കിൽ സ്ക്കിപ്പ് ചെയ്യാതെ കേൾക്കാറുണ്ട്